ഹലോ ആ മാഷെ പറയു ആ ഞാനിപ്പോഴിവിടെ വീട്ടിലുണ്ട് ഓ സുഖം സുഖം മാഷിപ്പോള് എവിടെയാ ഉള്ളേ ഓ അതെയോ എത്ര ദിവസമായി പോയിട്ട് ആ ആ ആ ആ ആ പിന്നെ മാഷെന്തൊക്കെയാണു പരിപാടി പിന്നെ പ്രോഗ്രാമൊന്നും ഉണ്ടായില്ലേ അതെയോ ആ

ആ ഇതിൻ്റെ പേപ്പറുകള് അല്ലേ ആ ആ ഓ ഡിജിറ്റൽ ലോക്കറില്നിന്ന് രേഖ പങ്കിടാൻ ഓ പറയു ആ ആ ആ ഓ ആയ്ക്കോട്ടെ ഞാനതെടുത്തുതരാം നിങ്ങള് വീട്ടിലേക്കു പോന്നോളു ഓ ഞാനിവിടെയിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോള് നാളെ പ്രോഗ്രാമുണ്ട് നമ്മളുടെയവിടെ വള്ളിയൂർക്കാവൊക്കെയില്ലേ അപ്പോഴൊന്നു പോയിട്ട് എല്ലാമൊന്ന് അടിപൊളിയാക്കിയിട്ടു വരണം ആ ഇതിൻ്റെ രജിസ്ട്രേഷൻ രേഖയല്ലേ അത് എന്റെ കയ്യിലുണ്ട് അത് ഡിജിറ്റൽ ലോക്കറിലാണ് ആ വാഹന രജിസ്ട്രേഷന് രേഖയല്ലേ ആ അതുണ്ട് അത് നമുക്കു നോക്കാം മാഷെന്നാല് ഇങ്ങോട്ടു പോരൂ ഓ മാഷ് നോക്കിയിട്ടു പറഞ്ഞാല് മതി ആ നമ്മളാഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോള് പോകണം ആ ആ ഞാൻ സഹായിക്കാം മാഷിങ്ങു വന്നാല് മതി ഞാൻ ചെയ്തുതന്നേക്കാം കുഴപ്പമില്ല ആ അത് മാഷ് പറഞ്ഞുതന്നാല് മതി മാഷിന് ഇഷ്ടമുള്ളപോലെ ഞാൻ ചെയ്തുതരാം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആ മാഷെ ലേശം ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോള് നമുക്ക് റെഡിയാക്കാമത് കുഴപ്പമില്ല അതു നമുക്ക് റെഡിയാക്കാം ആയിക്കോട്ടെ മാഷിങ്ങോട്ട് പോര് ഞാൻ ചെയ്തുതരാം കെട്ടോ ഓക്കെ